ഹലോ ആ സാറേ ഞാൻ ആദിക്കിൻ്റെ പപ്പയാണ് ആ സാറേ അവന് എങ്ങനാണ് കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നറിയാൻ വേണ്ടിയായിരുന്നു പിന്നെ ആ അവൻ എങ്ങനെയുണ്ട് നല്ലോണമൊക്കെ പഠിക്കുന്നുണ്ടോ

ആ ആ ആ ആ ഹ ആ സാറേ അവനെ പിന്നെ പഠിക്കാൻ വീട്ടിൽ വന്നാൽ പുസ്തകം കൈ കൊണ്ട് തൊടാറെ ഇല്ല അവന് മൊബൈലാണ് അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ അവന് എല്ലാ കാര്യങ്ങളും അവൻ ശരിക്ക് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ വളരെ ഏറെ കാര്യങ്ങൾ അവൻ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് പല പല ആപ്പുകളൊക്കെ എടുത്ത് അവന് ആ കാര്യത്തിൽ ഭയങ്കര നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പുസ്തകം പഠിക്കുന്ന കാര്യത്തിലാണ് അവന് ചെറിയ ബുദ്ധിമുട്ട് സാർ അവനെയൊന്ന് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളിലെ

അതെ അതെ

ആ ആ ആ ആ ആ ആ

ആ നല്ലകാര്യം ആ

ആ ആ ആ

ആ ആ

ആ അവനെ നമുക്ക് ഈ ഈ ഫീൽഡി വിടുന്നതായിരിക്കും ഇച്ചിരൂടെ ബുദ്ധിയല്ലേ മുന്നോട്ട് അത്യാവശ്യം പഠിക്കാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പ്രായമായി കഴിയുമ്പോൾ ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് വിടുന്നതായിരിക്കും അവന് മുന്നോട്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ആ ഹ ആ ഹ ആ ഹ ആ ഹ ആ ആ ആ ആ ഹ

ആ ഹ

ആ ഹ അപ്പോൾ അവന് ശാസ്ത്രമേളക്ക് അടുത്ത ആഴ്ചയോ അല്ല അടുത്ത മാസമോ എന്നോ ഒരു ദിവസം പോകണമെന്നുണ്ടല്ലോ അവന് അവന് അവന് അവൻ ഐറ്റം ഉണ്ടായിരുന്നു അവന് ഈ ബൾബ് കത്തിക്കുന്ന ഒരു സംവിധാനം അതിനുവേണ്ടി എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അത് എനിക്ക് തോന്നുന്നു അത് ഈ വെള്ളത്തിൽ വെള്ളം ഒരു ആ ആ ആ ആ ആ ഹ ആ ഹ ആ ഹ ആ ഹ ആ ആ ഹ ആ അവന് അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനേം ഇങ്ങനേം ബൾബുമൊക്കെയായിട്ട് നടക്കുന്നത് കണ്ടായിരുന്നു വെള്ളവും അങ്ങനൊക്കെ ഇതുവെച്ച് എന്തൊക്കെയോ അവൻ ബൾബ് വെച്ച് ചെയ്യുന്നത് കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് അവനെ കൂടെ കൊണ്ടുപോ അപ്പോൾ അവന് ആ ഇച്ചിരൂടെക്കെ ഇൻട്രെസ്റ്റായിക്കോളും ആ ഹാ ആ ആ ഓക്കെ സാർ തീർച്ചയായിട്ടും ഞാൻ വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ആ ആ ആ ആ ആ ഓക്കെ സാർ ഓക്കെ ആ ശരി ശരി എന്നാൽ